ഈ കാടിറങ്ങി വരുന്ന കുറെ വന്യജീവികളുണ്ട് ഉദാഹരണം ഇപ്പം കുരങ്ങ് അത് നമ്മടെ ഈ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് കുറെ നശിപ്പിക്കും അത് നമ്മളെ പിന്നെ ഉപദ്രേവിക്കാണ്ട് അതിനെ പടക്കം പൊട്ടിച്ച് ഓടിച്ച് അതിന്റെ കാട്ടിലോട്ട് തന്നെ ഇതാക്കും പിന്നെ കാടിറങ്ങി വരുന്ന ആനകള് അതൊക്കെ വന്ന് നമ്മടെ തെങ്ങ് അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ വളരെ ഇതില് നശിപ്പിക്കും പറമ്പായാലും എല്ലാം ചവിട്ടി ഇതാക്കി ഫുള് നശിപ്പിക്കും അതിനെ നമ്മള് അതിനെ ഒന്നും ചെയ്യാണ്ട് അതിന്റെ കാട്ടിലോട്ട് തന്നെ അവരുടെ അതിന്റെ ആള്ക്കാരുടെ കൂടെ തന്നെ നമ്മള് തിരിച്ചയക്കുന്ന രീതിയിലാണ് ഇതാക്കുന്നത് പിന്നെ ഉദാഹരണത്തിന് ഇപ്പം കടുവ ഇറങ്ങി കഴിഞ്ഞാലും കടുവ ഇറങ്ങി കഴിഞ്ഞാലും നമ്മള് അതിന് വേണ്ടിട്ട് ഒരു കെണി വയ്ക്കും രണ്ട് ദിവസം ഒക്കെ കഴിയുമ്പോ ചിലപ്പം വീണ് കഴിഞ്ഞ് അതിനെ എടുത്ത് ഇത് ആക്കീട്ട് ഏതേലും ഒരു സൂവിലോ അങ്ങനെ എവിടേലും കൊണ്ടോയി ഇട്ട് അതിന് ഫുഡ് ഒക്കെ കൊടുത്ത് അവര് അതിനെ സംരക്ഷിച്ച് അതിന് എന്തേലും പരിക്ക് പറ്റിയിട്ടുണ്ടോന്ന് അങ്ങനെയുള്ള കാര്യങ്ങള് ഒക്കെ അന്വേഷിച്ച് എന്നിട്ടാണ് അവര് അതിനെ റിലീസ് ചെയ്യുവുള്ളൂ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വന്യജീവികളെ ഒന്നും നമ്മള് ഉപദ്രവിക്കാണ്ട് എങ്ങനെയേലും ഒക്കെ അതിനെ തിരി തിരിച്ച് അതിന്റെ ആള്ക്കാരുടെ കൂടെ എത്തിക്കാന് ആണ് നമ്മള് പരമാവധി ശ്രമിക്കുക അല്ലാണ്ട് അതിനെ കൊല്ലുവോ അങ്ങനെയൊന്നും ചെയ്യാണ്ട്